ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ നമുക്ക് കോപ്പിറൈറ്റ് ലഭിക്കാൻ ഇൻ്റെലെക്ച്വൽ പ്രോപ്പർട്ടി ഇതൊക്കെ ലഭിക്കാൻ ഒരു വ്യക്തിക്ക് അധികം ബുദ്ധിമുട്ടില്ല കാരണമെന്താണെന്ന് ചോദിച്ചാൽ ഈ ഓരോ വ്യക്തികളും ഓരോ കുടുംബശ്രീയിൽ അംഗങ്ങളായിരിക്കും അവർക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടുകളും ആ കുടുംബശ്രീയുടെ കോഡിനേറ്റർ വഴി ആ പഞ്ചായത്തിൽ എത്തിച്ച് ആ കുടുംബശ്രീയുടെ ഓഫീസിലെത്തി കഴിഞ്ഞാൽ അവർ തന്നെ നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തരും അല്ലെങ്കിൽ നമുക്ക് വേണ്ട മാർഗനിർദേശങ്ങൾ തരും അപ്പോൾ ഇത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല സ്വന്തമായി ചെറുകിട വ്യവസായങ്ങൾ ചെയ്യുന്നവർക്ക് ഇങ്ങനെ കലാപരമായി കാര്യങ്ങൾ ചെയ്യുന്നവർകൊക്കെ അതിന് വേണ്ട ലൈസൻസ് കിട്ടാൻ വേണ്ടി നമുക്ക് വളരെ ഹെൽപ്പിങ്ങായിട്ടുള്ള ഒന്നാണ് കുടുംബശ്രീ അത് വഴി അവര് നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തരും